തൃശൂർ ജില്ലയിൽ എല്ലാ കൊല്ലവും ഒര് ആർഭാട കുറവും ഇല്ലാണ്ട് ആഘോഷിച്ച് വരുന്ന ഒര് ഉത്സവമാണ് ആഘോഷമാണ് തൃശ്ശൂർ പൂരം അത് ഏപ്രിൽ മാർച്ച് ആ ടൈമിലാണ് എല്ലാ കൊല്ലവും ആഘോഷിക്കാറ് ആ സമയമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ തൃശ്ശൂർ ടൗണിലേക്ക് ആർക്കും കടക്കാൻ പോലും ചെയ്യാൻ പറ്റില്ല ഫുള്ള് ആനകളും പാറമ്മേക്കാവ് വടക്കുനാഥൻ അങ്ങനെ രണ്ട് ഇതായിട്ട് കൊടി കൊടി മാറ്റവും കൊട മാറ്റവും അങ്ങനെയെല്ലാ സംഭവങ്ങളുവായട്ട് നിറയെ കടകളും ഉത്സവപ്പറമ്പും അങ്ങനെ നിറയെ ആഘോഷങ്ങളാണ് തൃശ്ശൂർ പൂരത്തിനെപ്പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്